ജോലി സ്ഥലത് എന്ന് പറയുമ്പോൾ ഒരിക്കല് ഞാൻ ഒര് കമ്പനിയില് ഒര് പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് അതില് ചെയ്ത് വെച്ച ഒര് രണ്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ഫയൽസ് അറിയാതെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഡിലീറ്റായി പോയി അപ്പോൾ അത് പിന്നെ അത് അത് ഇമ്പോർട്ടന്റ് ഫയലായത് കാരണം തന്നെ നമുക്ക് പിന്നെ നമ്മള് അത് ആ ആവിശ്യമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അതില്ലെങ്കില് ആ പ്രോജക്ട് അത് കമ്പ്ലീറ്റ് ആവില്ലായിരുന്നു അപ്പോൾ അത് പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെയായിരുന്നു പിന്നെ അത് വേറെ ഓഫീസിലെ വേറെ ഈ റിക്കവറി ചെയ്യുന്ന ആൾക്കാര് അത് റിക്കവർ ചെയ്ത് എടുക്കയും അങ്ങനെ അത് റിക്കവർ ചെയ്ത് കിട്ടുകയും ചെയ്തു അങ്ങനെ പ്രോജക്ട് ഞങ്ങൾ കമ്പ്ലീറ്റ് ചെയ്യുകയും ചെയ്തു അതില് എന്ന് പറയുമ്പോൾ അത് എൻ്റെയെന്നെ പിന്നെ എൻ്റെ ഒരു കെയർലെസ്സ് മിസ്റ്റേക്ക് ആയിരുന്നു അത് മിസ്സ് ആകാനുള്ള കാരണം അത് ഞാൻ പറയുകയും അത് റിക്കവർ ചെയ്ത് എടുക്കുകയും ചെയ്തു